പ്രധാന വ്യവസായ സ്ഥാപനങ്ങൾന്ന് പറയുമ്പോഴ്ത്തേന് നമുക്ക് കയർ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഒത്തിരി കയറുല്പന്നങ്ങൾ വിൽക്കുന്നുണ്ട് അതുകൊണ്ട് കശുവണ്ടി ഉണ്ട് തുണിത്തരങ്ങൾ ഉണ്ട് തുണിത്തരങ്ങൾ എല്ലാം നമ്മൾ ഇഷ്ടംപോലെ കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്നത് കൊണ്ട് ഒത്തിരി ലാഭങ്ങൾ കിട്ടുന്നുണ്ട് പിന്നെ കൂടുതലായിട്ടും പ്രവാസികൾ പ്രവാസി മലയാളികൾ ഉള്ളത് കൊണ്ട് നമുക്ക് വരുന്ന പണം കൂടുതലായിട്ടും ഒത്തിരി വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ തുടങ്ങാനായിട്ട് അവർ നമുക്ക് മൊട മുടക്കാനായിട്ട് ഒരു മൂലധനം ആയിട്ടവർ നമുക്കിട്ട് തരുന്നുണ്ട് പണം ബാങ്ക് വഴിയെല്ലാം ഇട്ട് തരുന്ന കൊണ്ട് നമുക്ക് ആ പൈസകളെടുത്ത് സാമ്പത്തിക വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ കാര്യങ്ങളെല്ലാം നടന്ന് പൊക്കൊള്ളും പിന്നെ നമ്മളിപ്പം നമുക്കിപ്പം ഒരു പത്ത് രൂപ ഉണ്ടേൽ അത് നമ്മൾ ബാങ്കി കൊണ്ട് പോയി അത് നിക്ഷേപിക്കുന്ന അതിൻ്റെ നമ്മളൊരു കാര്യം നമ്മളെന്ത് സാധനങ്ങൾ മേടിക്കാനായിട്ടാണേലും നമ്മളിപ്പം ഫോൺ പേയും ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മളിട്ടിരിക്കുന്ന പൈസാക്ക് വേണ്ടീട്ട് കിടക്കുന്ന പൈസ ബാങ്കിൽ കിടക്കുന്നത് കൊണ്ടത് ബാങ്കിലതിൻ്റെ പലിശ കാര്യങ്ങൾ കയറി വരുമ്പോഴ്ത്തേനും അതും ഇപ്പം നമുക്കൊരു കൂടുതലൊരു വരുമാനമായിട്ടാണ് വരുന്നത് അത് നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മളെ നല്ല നിലയിൽ നയിക്കാനായിട്ട് എല്ലാ ബാങ്കിങ് കാരും നല്ല രീതിയിൽ നമ്മളോട്